ഞാനിപ്പോൾ എന്തിനാണ് നിന്നെ വിളിച്ചതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഹോട്ടലുകളിൽ ഏത് റസ്റ്റോറൻ്റിലൊന്ന് കയറണമെന്നൊന്ന് അറിയാനായിട്ടായിരുന്നു എനിക്ക് എനിക്കൊന്ന് ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു അപ്പോൾ നല്ല റേറ്റിംഗുള്ള നല്ല ഫുഡ് റേറ്റിംഗ് ഒക്കെ ഉള്ള റസ്റ്റോറൻ്റുകളൊക്കെ നിൻ്റെ പരിചയത്തിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് സജ്ജസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ നിന്നെ ഒന്ന് വിളിച്ചതേ അപ്പോൾ നീ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരികയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് അതുപോലെതന്നെ അതിൻ്റെ ഒരു ആ ഒരു റസ്റ്റോറൻ്റിനെ പറ്റിയുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അറിയാമായിരുന്നു അതെങ്ങനെയാണ് ആ അതിൻ്റെ ഗുണനിലവാരത്തെ ഒക്കെക്കുറിച്ച് ഒന്നറിയാമായിരുന്നു പിന്നെ അത് ഏതെങ്കിലുമൊക്കെ ഫുഡ് ഡെലിവറി ആപ്പിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ഗൂഗിൾ റേറ്റിംഗൊക്കെ ഇല്ലേ അതൊക്കെ ഒന്നറിയണം അതുപോലെതന്നെ ഫുഡ് ഡെലിവറി അപ്പുകളില്ലേ അതിനകത്തൊക്കെ ഏതിനകത്തൊക്കെ അതുണ്ടെന്നറിയാനായിട്ടായിരുന്നു പിന്നെ നമുക്ക് അവിടുത്തെ നല്ല ഫുഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഓഡർ ചെയ്ത് ഫുഡൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ അതിനുംകൂടെ വേണ്ടിയായിരുന്നു ചോദിച്ചത് അപ്പോൾ നിൻ്റെ പരിചയത്തിലേതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീയൊന്നെനിക്ക് മെസ്സേജ് അയക്കുമോ അല്ലെങ്കിൽ നീയെനിക്കൊന്ന് പറയുകയൊക്കെ ചെയ്തു തരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ അപ്പോൾ നീയതിൻ്റെ കാര്യമൊന്ന് നോക്കണം കേട്ടോ എന്നാൽ നമുക്ക് എനിക്കറിയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെയാണെന്ന് ഉള്ളത് അത് വലിയ ഉപകാരമായിരിക്കും നീയത് ചെയ്തു തന്നാൽ ഇപ്പോൾ ഞാനിവിടെയൊരു ഫുഡ് കഴിക്കാനായിട്ട് ഒരു റസ്റ്റോറൻ്റിൽ കയറിയിട്ട് കയറാനായിട്ട് ഇങ്ങനെ വെയ്റ്റ് ചെയ്തു ഇരിക്കുകയാണ് അപ്പോൾ നീയൊന്ന് പെട്ടന്ന് തന്നെ ഒരു നല്ല റസ്റ്റോറന്റ് നിൻ്റെ പരിചയത്തിലുള്ള അല്ലെങ്കിൽ നല്ല റേറ്റിംഗ് വല്ലതും ഉള്ള റസ്റ്റോറൻ്റൊന്ന് നോക്കി പറയുമായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്നൊരിടത്ത് ഫുഡ് കഴിക്കാൻ കയറാമായിരുന്നു കാരണം ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് വേഗം തന്നെ ഒന്ന് അയച്ചു തരികയായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നേനെ